ആ പറയൂ ആ ഓക്കെ ആദ്യമായിട്ട് എടുക്കാൻ വരികയാണല്ലേ ഇവിടെ ആ ഓക്കെ സ്ഥലം എവിടെയാണ് ഓക്കെ ഇനിയിപ്പോൾ അടുത്ത് വേറെ എങ്ങോട്ടൊന്നും പോവുകയൊന്നും ഇല്ലല്ലോ ആ ശരി ഇവിടെ മെമ്പർഷിപ്പിലാത്തത് കൊണ്ട് ബുക്കെടുക്കാൻ നിങ്ങൾക്ക് മൂന്നൂറ് രൂപയായിരിക്കും മെമ്പർഷിപ്പുണ്ടെങ്കിൽ ഇരുന്നൂറ്റമ്പതേ ആവുകയുള്ളു പിന്നെ ഈ റിട്ടേൺ ടൈമില് ഈ ഈ പൈസ തന്നാൽ മതി നമ്മൾക്ക് നോവല് സ്റ്റോറി അങ്ങനെ ഏതാണ് വേണ്ടത് ആ ശരി ബുക്ക് നമുക്ക് ഇരുപതു ദിവസം കയ്യിൽ വയ്ക്കാനേ പറ്റുകയുളളൂ മാക്സിമം ഇരുപതാണ് അത് കൂടി കഴിഞ്ഞുകഴിഞ്ഞാൽ ഫൈനുണ്ട് പെർ ഡേ നമുക്കൊരു പത്തു രൂപ വെച്ചിട്ടാണ് ഫൈൻ വരുന്നത് ആ പിന്നെ വേറെന്താ അറിയേണ്ടത് എല്ലാ ബുക്കുമുണ്ട് പഠിക്കാനുള്ള ബുക്കുണ്ട് പി എസ് സി യു പി എസ് സി എസ് എസ് സി അതിൻ്റെ ഉണ്ട് പിന്നെ വേറെ മറ്റേ എസ് സി ആർ ടി എൻ സി ആർ ടി എല്ലാ ബുക്കുകളുമുണ്ട് ആ പ്ലസ്ടുവിൻ്റെ ഗൈഡുണ്ട് പക്ഷെ അപ്ഡേറ്റായ സിലബസ്സിൻ്റെ ഗൈഡ് ഞങ്ങള് കൊണ്ട് വരുന്നതേ ഉള്ളു അതെത്താൻ കുറച്ചു ടൈമെടുക്കും മുമ്പുള്ള സിലബസ്സ് വരെയുള്ളത് കയ്യിലുണ്ട് ഒരേ സമയം മൂന്ന് ബുക്കെടുക്കാനെ പറ്റുകയുളളൂ മാക്സിമം മൂന്ന് ബുക്ക്

ആ മൂന്നും ഇരുപത് ദിവസം എല്ലാ ഏതു ബുക്ക് എടുക്കുന്നതും മാക്സിമം ഇരുപത് ദിവസം മൂന്ന് മൂന്നും ഒരേ ടൈമാണ് എടുക്കണതെങ്കിൽ മൂന്നും ഇരുപത് ദിവസത്തിന് മുന്നെ തരണം ഓരോ ബുക്കിനും ഇരുപത് ദിവസമെന്നല്ല മൂന്ന് ബുക്കും കൂടെ ചേർത്ത് ഇരുപത് ദിവസത്തിനുള്ളിൽ തരണം

ആ കിട്ടും ഇപ്പോൾ ആദ്യം ഇങ്ങോട്ടു കൊണ്ട് വന്ന് റിട്ടേൺ ചെയ്തിട്ട് സൈൻ ചെയ്യണം ആ പൈസയും അടക്കണം അതിനുശേഷം പിന്നേയും നമ്മള് വീണ്ടും അയാളുടെ പേരിൽ തന്നെ എടുത്തിട്ട് കൊണ്ടുപോവാനേ പറ്റുകയുളളൂ ആ അങ്ങനെയാണ് ആ മുന്നൂറ് രൂപ ഇല്ലയില്ല ഇനി ഒരോ തവണ എടുക്കുന്ന സമയത്ത് വേണ്ട മെമ്പർഷിപ്പ് എടുക്കാനാണ് ആക്ച്വലി ആ മുന്നൂറ് രൂപ ഉള്ളത് പിന്നെ എടുക്കുമ്പോൾ നമുക്കതു വേണ്ട പിന്നെ പൈസ അടയ്ക്കേണ്ട കാര്യമില്ല ആ തിരിച്ചു തരില്ല നിങ്ങൾ ബുക്ക് എടുത്താലും ഇല്ലെങ്കിലും അത് നിങ്ങൾക്ക് തിരിച്ചു തരാനുള്ള ഓപ്ഷനില്ല ഇവിടെ

നിങ്ങളുടെ പേര് വേണം പിന്നെ ഏജ് പിന്നെ പ്ലേസ് മസ്റ്റായിട്ട് വേണം മൊബൈൽ നമ്പറ് ഇത്രയും കാര്യങ്ങൾ മതി ആ ഫോമുണ്ട് ഒരു ഫോട്ടോയും കൂടെ വേണം ആ ഫോം ഇപ്പോൾത്തന്നെ ഞാൻ ഫില്ല് ചെയ്തു തരാവുന്നതേ ഉളളൂ അത്ര വലിയ ഫോമൊന്നും അല്ല സിംപിൾ ഫോമാണ് ജസ്റ്റ് ഒരു ഫോട്ടോ ഒട്ടിക്കണം കുറച്ച് ഇൻഫർമേഷനുണ്ട് അതുചെയ്തു അവസാനം സൈൻ മാത്രം ഇട്ടാൽ മതി അഥവാ നിങ്ങള് പിന്നെ ആ ത്രീ ഹൺഡ്രഡ് ഗൂഗിൾ പേ ചെയ്യാം അല്ലെങ്കിൽ കയ്യിൽ തരാം അതോടെ നിങ്ങൾക്ക് മെമ്പർഷിപ്പ് ഓക്കെ ആവും പിന്നെ നിങ്ങൾക്ക് റെഗുലറായിട്ടു വരാം ബുക്കെടുക്കാം ട്വൻറ്റി ഡേയ്സ് ഇവിടെയിരുന്നു വായിക്കാനുള്ള അവൈലബിലിറ്റിയുണ്ട് എന്ത് വേണേലും നമുക്ക് ചെയ്യാം ഇവിടെയിരുന്നു വായിക്കാൻ കഴിഞ്ഞാൽ അതേപോലെത്തന്നെയാണ് ഇരുപത് ദിവസങ്ങൾ കൊണ്ട് തന്നാൽ മതി പക്ഷെ ഇവിടെയിരുന്ന് വായിച്ച് നമുക്ക് അങ്ങനേയും ചെയ്യാം

ആ ഓക്കെ ഓക്കെ